ഹലോ പറഞ്ഞോ കണ്ടു പക്ഷേ ആ ട്യൂൺ അത്ര പോരല്ലോ ഒന്നത് റീമേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്താ ചോദിച്ചേ ക്ലിയറായില്ല ഒന്നുകൂടി ചോദിക്കാമോ

ആ ആ കേൾക്കാൻ ഒരു ഭംഗിയില്ല ഇച്ചിരികൂടി ഭംഗി വരുത്തു അതൊക്കെ തരാമെടോ ഞാൻ പറഞ്ഞ ജോലി ചെയ്യു ആ നല്ല ക്വാളിറ്റി വേണം കേൾക്കുമ്പോൾ ആളെ അതിലാകർഷിക്കണം മെലഡി മതിയായിരിക്കും നമ്മൾ ലൗ ഷോർട്ട് ഫിലിം ലൗ ലൗ സോംഗാണ് ഉദ്ദേശിക്കുന്നത്

എന്നാൽ നയൻതാരയായിരിക്കും തീരുമാനിച്ചത് ഏഹ് ആ പറഞ്ഞോ പറഞ്ഞോ കേൾക്കുന്നുണ്ട് ആ ഞാൻ എന്നാൽ ഇപ്പം അത് അഞ്ചു മിനിറ്റിനുള്ളിൽ അയച്ചുതരാം തിരക്കുണ്ടായിരുന്നു മീറ്റിംഗിലായിരുന്നു

ഞാൻ ഈ മാസവും അടുത്ത മാസവും കാണും അതിൻ്റെ അനിയനേ ആശുപത്രിയിലാണ് ആപ്പോൾ അവനിറങ്ങിക്കഴിഞ്ഞിട്ടെ ഉള്ളുവായിരിക്കും കുമാർ അല്ല വെറും കുമാറാണ് ഇത് പുത്തൻ ഡാൻസറാണ് പുത്തൻ പ്രൊഡ്യൂസറും ഇല്ല പുത്തൻ സിനിമയാണ് ഇത് ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റാവും അതിന് ചെയ്യുന്നത് നമ്മളോരോ കാര്യങ്ങളും ആ അതല്ലേ തന്നെത്തന്നെ ഏൽപ്പിച്ചേ എല്ലാം തന്നെ ഏൽപ്പിച്ചത് കാശെത്ര വേണമെങ്കിലും മുടക്കും നല്ല പാട്ടായിരിക്കണം ഫിലിം ഹിറ്റാവുകയും വേണം ഹലോ ഇപ്പം എത്രയായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ

ആ ഇടാമല്ലോ ഞാൻ ഇപ്പോൾത്തന്നെ ഇട്ടേക്കാം ഒരു രണ്ട് മിനിറ്റ് ഓക്കെ എന്നെ നോക്കിയിട്ട് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ